ഒരു ഹാൻഡ് പമ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് എനിക്ക് അറിയാം ഈ പ്രവർത്തന മേഖലയിൽ നല്ല പോലെ ഫോഴ്സ് ചെലുത്തി എയറിനെ നമ്മൾ കുഴൽ കിണറിലോട്ട് അടിച്ച് വിട്ട് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് നമുക്ക് കിട്ടുന്നിടം വരെ നമ്മൾ ഹാൻഡിൽ വർക്ക് ചെയ്യുകയേ ചെയ്യണം തുടരെ വർക്ക് ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ വെള്ളം ധാരാളമായിട്ട് നമ്മുടെ കുടങ്ങളിൽ വന്ന് വീഴുകയും ഈ കുടങ്ങളിൽ നിറഞ്ഞ് വെള്ളം കിട്ടുകയും ചെയ്യുന്നുണ്ട് ചില സാഹചര്യങ്ങളിൽ മാത്രം നമുക്ക് പിന്നേ ഈ വെള്ളം പിന്നെ കിട്ടാതെ വരും വേനൽകാലങ്ങളിലും വലിയ പിന്നെ വരൾച്ച സമയത്തും ഒക്കെ അപ്പോൾ പമ്പുകളിൽ നമ്മൾ ക്യൂ നിന്ന് ശകലിച്ച വെള്ളം കിട്ടുന്നത് എടുക്കാറുണ്ട് പിന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ പിന്നത്തെ എന്താണെന്ന് ചോദിച്ചാൽ ഈ വെള്ളം കിട്ടാതെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസവും നമ്മൾ ഒത്തിരി അനുഭവിച്ചതാണ് മുൻകാലങ്ങളിൽ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് കുഴൽ കിണറുകൾ അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ ശ്രോതസ്സ് കൂടിയത് കൊണ്ടും നമുക്ക് ഇത് അനുഭവത്തിൽ വരുന്നില്ല